പാട്ട് കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എനിക്ക് കൂടുതലും മേലോഡീസാണ് ഇഷ്ടം ആർജിത് സിങ് ടൈലർ സ്വിഫ്റ്റ് ഞാൻ ഇംഗ്ലീഷ് സോങ്സാണ് കൂടുതൽ കേൾക്കാറ് പിന്നെ ഹിന്ദി മലയാളവും എനിക്ക് ഇഷ്ടമാണ് ആർജിത് സിങ് ടൈലർ സ്വിഫ്റ്റ് പിന്നെ മലയാളത്തിലാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ഒക്കെ പാട്ടുകൾ ഹരി എനിക്ക് ഹരി ശാമിൻ്റെ പാട്ടുകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രാദേശിക പാട്ടുകളെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും കേരളത്തിലെ മലയാളം പാട്ടുകളെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് പുറത്തുള്ള പാട്ടുകളെക്കാൾ പാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം ഞാൻ കുറെ പാട്ട് കേൾക്കുന്ന ഒരാളാണ് പാട്ട് കേട്ട് എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ് ഫ്രീയായ സമയങ്ങളിൽ മറ്റും പാട്ട് കേൾക്കാൻ ആണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് രാത്രി ഒക്കെ ഇരുന്ന് പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൽ ഞാൻ ഒരുപാട് ഇഷ്ടപെടുന്ന ഗാനങ്ങൾ ടൈലർ സ്വിഫ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് സിങ്ങർ